ഓ നമ്മുടെ സഹൂഹത്തില് നൃത്തം ഒര് പ്രധാന പങ്കുവഹിക്കുന്ന ഒരുപാട് അവസരങ്ങള് ഉണ്ട് ഇപ്പം നമ്മുടെ ഏതൊരു സ്കൂളില് ഒരു പരിപാടി നടക്കുകയാണെങ്കിൽ അവിടെ നൃത്തം എന്നുപറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏറ്റവും പ്രധാപ്പെട്ടൊരു കാര്യമാണ് നൃത്തം ഇല്ലാതെ എവിടേയും ഒരു പരിപാടിയും നടക്കാറില്ല നമുക്ക് ഉത്സവങ്ങൾ എടുത്തു നോക്കാം ഉത്സവങ്ങളില് പ്രധാന പങ്കുവഹിക്കുന്നത് കഥകളി തെയ്യം തിറ അതെല്ലാം ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പം കുഞ്ഞുകുട്ടിയാവുന്നത് മുതലേ നമ്മള് കുട്ടിനെ നൃത്ത ക്ലാസ്സിലാണ് കൊണ്ട് ചേർക്കുന്നത് മൂന്ന് വയസ്സ് മുതൽ അവര് പന്ത്രണ്ട് വർഷത്തോളം അല്ലങ്കിൽ ജീവിതകാലം മൊത്തം നൃത്തം പഠിക്കുക എന്നുള്ളൊരു രീതിയിലേക്കാണ് ഇപ്പം മാറിക്കൊണ്ടിരിക്കുന്നത് ഇപ്പം നൃത്തത്തിന് വളരെയധികം പ്രാധാന്യം നമ്മുടെ ഉത്സവങ്ങൾക്ക് അല്ലെങ്കിൽ പരിപാടികൾക്ക് ഉണ്ട് അപ്പം നമ്മുടെ സ്കൂളിൽ തന്നെ വാർഷിക പരിപാടി എന്ന് പറഞ്ഞിട്ട് നമ്മള് നൃത്തം സിനിമാറ്റിക് ഡാൻസാണെങ്കിലും അല്ലെങ്കിൽ മറ്റ് ഡാൻസിനൊക്കെ ഏറ്റവും കൂടുതൽ പ്രധാന്യം കൊടുത്തുകൊണ്ടാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പം നൃത്തം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒഴിച്ചുകൂടാനാവാത്ത ഒരു കാര്യമാണ് നമുക്ക് എടുത്ത് സ്കൂളിൻറെ കാര്യം ഇപ്പം ഒരു ടീച്ചർ എന്നുള്ള നിലയ്ക്ക് ഞാൻ സ്കൂളിള് പഠിപ്പിക്കുന്ന സമയത്ത്കുട്ടികൾക്ക് ഏറ്റവും കൂടുതൽ കലാവാസന ഉണർത്താനാണ് ശ്രമിക്കുന്നത് അവരുടെ പഠനത്തോടൊപ്പം കലയും വളർത്തണം എന്നുള്ളൊരു ചിന്തയാണ് ഉള്ളത് അതുകൊണ്ട് തന്നെ നമ്മൾ ആർട്സ് പരമായിട്ട് കാര്യങ്ങൾ നോക്കുന്ന സമയത്ത് നൃത്തതിന് വളരെയധികം പ്രാധാന്യമാണ് ഉള്ളത് നാടോടിനൃത്തം ഗ്രൂപ്പ് ഡാൻസ് അതുപോലെതന്നെ തിരുവാതിര കഥകളി മാർഗംകളി എന്നിവയ്ക്കെല്ലാം ഏറ്റവും കൂടുതൽ പ്രധാന്യം ഏറികൊണ്ടിരിക്കുകയാണ് ഇപ്പം ഇന്ന് സമൂഹമാധ്യമം എടുത്ത് നോക്കുകയാണെങ്കിൽ പല പല സ്റ്റേജ്സ് അവസരങ്ങള് നിറഞ്ഞു നിൽക്കുകയാണല്ലോ അപ്പോൾ ടി വി പരിപാടികളിലെല്ലാം പാട്ടുപാടുന്ന കുട്ടി നൃത്തം ചെയ്യുന്ന കുട്ടികൾക്കൊക്കെ വളരെ വലിയ പങ്കാണ് ഉള്ളത് അവര് അവര് വഴി ഒരുപാട് വരുമാനം ഉണ്ടാക്കുന്ന ആളുകളും ഉണ്ട് അപ്പം നൃത്തം പഠിക്കുക എന്നത് ഏറ്റവും വലിയൊരു പ്രധാപ്പെട്ടൊരു കാര്യമാണ് നമ്മുടെ ഒരു സമൂഹത്തിൽ എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ അപ്പം ഉത്സവങ്ങൾ എടുത്ത് നോക്കുകയാണെങ്കിൽ ഞാൻ പറഞ്ഞു അതായത് ശിവരാത്രി എന്നുള്ളൊരു മഹോത്സവം എടുത്തു നോക്കുകയാണെങ്കിൽ അവിടെ രാവിലെവരെയും ഉറക്കം ഒഴിക്കുന്നത് എന്തുവഴിയാണ് നമ്മൾ ഈ നൃത്തം അല്ലെങ്കിൽ കുട്ടികളുടെ കലാഭിരുചി ഒക്കെ മനസ്സിലാക്കികൊണ്ട് അതുവഴിയാണ് നമ്മള് സമയം ചെലവഴിക്കുന്നത് അപ്പം നൃത്തതിന് വളരെയധികം പ്രധാപ്പെട്ട ഒരു പങ്കാണ് നമ്മുടെ സമൂഹം കൊടുത്തുകൊണ്ടിരിക്കുന്നത് ഇപ്പം ക്രിസ്താനികളുടെ പള്ളിപെരുന്നാളാകട്ടെ അവിടെ പള്ളിപെരുന്നാളില് നമ്മൾ പ്രധാനാമായിട്ട് സ്റ്റേജ് കെട്ടിയിട്ട് ഡാൻസൊക്കെ കളിക്കാറുണ്ട് അതുപോലെതന്നെ ഓണത്തിന് നമ്മൾ തിരുവാതിര എന്നുപറഞ്ഞുകഴിഞ്ഞാൽ ഒഴിച്ചുകൂടാനാവാത്ത ഒന്നാണ് ഈ എവിടെ പരിപാടി നടത്തിയാലും അവിടെ ഒരു തിരുവാതിര കളി ഉണ്ടാകും അതുപോലെതന്നെ ഒരു ഉദ്ഘാടന സെക്ഷൻ ആണെങ്കിൽ നമ്മള് അവിടെ ഒരു തിരുവാതിര കളി ആണ് നടത്തുക അപ്പം നൃത്തം എന്നുപറഞ്ഞിട്ടുണ്ടെങ്കില് ഉത്സവങ്ങൾക്കും അല്ലങ്കിൽ എല്ലാ പരിപാടിക്കും ഒരു ഒഴിച്ചുകൂടാനാവാത്ത ഒന്നായിട്ട് മാറിക്കൊണ്ടേയിരിക്കുകയാണ് അപ്പം നമ്മുടെ സമൂഹത്തിലെന്താണ് നൃത്തത്തിന് വളരെയധികം വലിയ പ്രാധാന്യമാണ് ഉള്ളത് കുഞ്ഞുകുട്ടികള് വരെ നൃത്തം പഠിക്കാണമെന്നുള്ള ആഗ്രഹമായിട്ട് ഇപ്പം ജനി ജനിക്കുന്നത് തന്നെ അപ്പം അച്ഛനും അമ്മയും അതിന് വേണ്ടിയിട്ട് ഒരുപാട് കഷ്ടപ്പെട്ന്ന്ണ്ട് വരുമാനത്തിലെ ഒരു വലിയ പങ്ക് ഈ നൃത്തത്തിന് വേണ്ടിയിട്ടാണ് ചിലവഴിക്കുന്നത് പിന്നെ അതുപോലെ തന്നെ കലാതിലകമാവുക എന്ന് പറയുന്ന തന്നെ ആ കുട്ടി ആ ഒരു സമൂഹത്തില് പേരെടുക്കുകയാണ് ചെയ്യുന്നത് അതിന് വേണ്ടിയിട്ട് എത്ര പൈസ മുടക്കാനും ജഡ്ജസിനെ സ്വാധീനിക്ക സ്വാധീനിക്കാനും ഒക്കെ ആളുകള് തയ്യാറായിട്ട് നിൽക്കുകയാണ് അപ്പം നൃത്തം എന്ന് പറഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കില് ഏറ്റവും വലിയൊരു എന്താ പറയുക ഒരു ചടങ്ങായിട്ട് അല്ലങ്കിൽ ഒരു വലിയൊരു സംഭവമായിട്ട് മാറികൊണ്ടിരിക്കുന്നൊരു സമൂഹത്തിലാണ് നമ്മള് ഇന്ന് ജീവിച്ചുകൊണ്ടിരിക്കുന്നത്